പക്ഷി നിരീക്ഷണത്തിലൂടെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസാധാരണമായി തോന്നിയിട്ടുള്ള ഒരു പക്ഷിയാണ് വവ് വവ് കഴുകൻ കഴുകൻ ഒരു മനുഷ്യന്മാരുടെയും മൃഗ പക്ഷി മൃഗാതികളുടേയും ഒക്കെ മരണശേഷം അതിൽനിന്നുള്ള അവശിഷ്ടങ്ങൾ കൊത്തിത്തിന്നുന്ന കഴുകന്മാർ അത് അത് ആ കാഴ്ച്ച ഞാനിത് വരെ കൺ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്ന കഴുകന്മാരെ അങ്ങനെയാണ് കഴുകന്മാർ ഭക്ഷിക്കുന്നത് അവരുടെ കഞ് അവരുടെ കൊക്കുകളായാലും വളരെ മൂർച്ചയേറിയതും അവരുടെ അവരുടെ കാണുന്നത് തന്നെ ഒരൂ ഒരു ഭയാനകമായ ദൃശ്യമാണ് കഴുകന്മാരിങ്ങനെ പറന്നു നടന്ന് ഒരു ഒച്ച ഉണ്ടാക്കും ആ ഒച്ച പോലും എല്ലാവരേയും ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് കഴുകന്മാർ ഒരുവിധം വലിപ്പമേറിയ പക്ഷികളാണ് ഇവരുടെ ഫെദേഴ്സ് ചിറകുകളും അത്യാവശ്യം അടിക്കും ഒരു അവരുടെ ചിറക് ചിറകടിയും അത്യാവശ്യം പേടിപ്പെടുത്തുന്ന പോലത്തെയാണ് ഇവർ പറന്നു വരുക സ്റ്റീപ്പായിട്ട് ഇവർ പറന്നു വരുന്നത് ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മളെ ഭീതിപ്പെടുത്താറുണ്ട് ഇത് പറന്നു വന്ന് നരഭോജികളെ പോലെയാണ് മരിച്ച ശരീരങ്ങൾ അഴുകി തുടങ്ങിയ ശരീരങ്ങൾ തിന്ന് തിന്നും അതിനിടയിൽ ആൾക്കാർ വന്നാൽ അവരെ അറ്റാക് അവരെ ആക്രമിക്കാൻ പോലും ഇവർ മടിക്കില്ല എന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരൂ വേറിട്ടൊരു അനുഭവമാണ് ഇവരെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് കഴുകന്മാർ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പീഷീസ് അതിൽ തന്നെ ഉണ്ടാകാം എന്നാൽ നമ്മുടെ അവിടെ കെ കേരളത്തിൽ ഇവൻ ഈയടുത്തായി പല സ്ഥലങ്ങളിൽ നിന്നും കഴുകന്മാരെ ഇടയ്ക്ക് എപ്പോഴോ കണ്ടു എന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ചു കഴുകന്മാർ അവശിഷ്ടങ്ങൾ കൊത്തിത്തിന്ന് അവ പറന്നു പോകുന്നു കഴുകന്മാര് കഴുകന്മാർ എന്നു പറയുമ്പോൾ നമ്മൾക്ക് മറ്റുള്ള പക്ഷികളിൽ നിന്നും വേറിട്ടൊരു ചിന്തയാണ് വരുന്നത് ഒരു ഒരു ലാളിത്തമുള്ള കഴുകന്മാർ എന്നത് കഴുകന്മാർ ഒരു ഭീതിപ്പെടുത്തുന്ന സ് കാര്യം തന്നെയാണ് അഴുകിയ ഭക്ഷണങ്ങളും അഴുകിയ ഭക്ഷണമെല്ലാം അഴുകിയ മനുഷ്യ ശരീരം അഴുകിയ മൃത ശരീരം അഴുകിയ പക്ഷി ശരീരം എല്ലാം അവർ തിന്നുന്നു ശരി കൂടുതലും കാണപ്പെടുന്നത് അങ്ങനെ വലിച്ചെറിയപ്പെട്ട അല്ലെങ്കിൽ ഇതെല്ലാം മാംസങ്ങൾ അങ്ങനെയെല്ലാം അടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് പക്ഷികളിൽ ഇങ്ങനെ ശരീരം അഴുകിയ ശരീരങ്ങൾ തിന്നുന്ന പക്ഷികൾ വളരെ കുറവാണ് അതിലൊന്നാണ് ഈ കഴുകൻ